നമ്മുടെ പ്രദേശത്ത് ആളുകൾ ശക്തമായി വിശ്വസിക്കുന്ന ചില അന്ധവിസ്വാസങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമായി ജാതകപൊരുത്തത്തെക്കുറിച്ചാണ് ആദ്യമായി ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിലുള്ള ചേർച്ച എന്ന് പറയുന്നത് ആളുകൾ ഒരു ജാതകത്തെ ചേർച്ചയെ അനുസരിച്ചാണ് അവർ വിശ്വസിക്കുന്നത് പക്ഷേ ചേർച്ചയേക്കാൾ അവര് മനപ്പൊരുത്തമാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് കാരണം ജീവിത പങ്കാളി ആയി വരുന്നവരുടെ സ്വഭാവമാണ് അല്ലാതെ അവരെ ജനിച്ച സമയം ഇത് വച്ചിട്ടല്ല നമ്മളത് കണക്കാക്കണ്ടത് ആദ്യമായി പറയുന്നൊരു അന്ധവിശ്വാസം ഈ ജാതകപ്പൊരുത്തമാണ് രണ്ടാമത്തേതെന്ന് വച്ചാല് ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് ചില നമ്മൾ കുട്ടിക്കാലം മുതലേ കേൾക്കുന്ന കുറെ അന്ധവിശ്വാസങ്ങൾ ഉണ്ട് അത് ഉദാഹരണത്തിന് രാത്രികാലങ്ങളില് ഗർഭിണികൾ നടക്കരുതെന്ന് പറയുന്നത് ഈ രാത്രി കാലങ്ങളിൽ എന്ന പറയുമ്പോൾ നടക്കരുത് എന്ന് പറയുന്നത് അവർ രാത്രികാലങ്ങളിൽ നടക്കുമ്പോൾ വല്ലതും തട്ട് കാല് തട്ട് കാല് തട്ടി വീഴുമ്പോൾ പരിക്ക് പറ്റുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് പക്ഷേ ഈ പണ്ട് മുതൽക്കേ പറഞ്ഞ് കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആണ് പിന്നെ കാലാട്ടരുത് എന്ന് പറയാറുണ്ട് കാലാട്ടരുതെന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഈ മുറുക്കി തുപ്പുന്ന ഒരു സ്വഭാവമുണ്ട് കട്ടിലിനടിയിൽ നമ്മളത് കൊളാമ്പിയിൽ വയ്ക്കുമ്പോൾ തട്ടി പോകരുത് എന്ന് പറയുമ്പോഴാണ് അതുണ്ടാകുന്നത് പിന്നെ അത് കടം വരുന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മള് അങ്ങനെ പറയുന്നത് കാലാട്ടരുത് പണ്ട്കാലത്ത് അങ്ങനെ പറയുന്നത് ഈ കോളാമ്പി തട്ടിയിട്ട് വക്കും എന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് പിന്നെ പിന്നേന്ന് പറയുന്നത് മറ്റുള്ളവര് എന്ത് വിചാരിക്കും എന്നുള്ളൊരു കുറച്ചൊരു അതൊരു അന്ധവിശ്വാസത്തിലേക്ക് പെടുത്തുമോ എന്ന് അറിയില്ല പക്ഷേ അതൊരു അന്ധവിശ്വാസത്തിലേക്കുള്ള മാറുകയാണ് നമ്മുടെ ചിന്താഗതി അനുസരിച്ചിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് അതിൽ അതും ഒര് ഇപ്പോഴൊരു അന്ധവിശ്വാസമായി മാറുകയാണ് ചെയ്യുന്നത്